കഴിഞ്ഞൂറ്റി കഴിഞ്ഞൊരു ദിവസം ഞാനൊരു ഗാർണിയറിൻ്റെ ഒരു ഫെയ്സ് വാഷ് മേടിച്ചു ആ ഒരു പ്രൊഡക്റ്റ് ഒരു നല്ലൊരു പ്രൊഡക്റ്റായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വല്ലാത്ത ഒരു എക്സ്പീരിയൻസാണ് കാരണം നമുക്കത് അപ്ളയ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് നല്ലതുപോലെ അറിയാനായിട്ട് ഉണ്ടായിരുന്നു നല്ല ഒരു പ്രോഡക്റ്റ് ആണ് അവരുടെ നല്ലൊരു ന നമുക്ക് ഇട്ടാലും ഒന്നും നമ്മുടെ മുഖത്ത് അത് ഇട്ടാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല നല്ലൊരു എനിക്കവരുടെ പ്രൊഡക്റ്റ് വല വളരെ അത് ഇഷ്ടപ്പെട്ട്

ഹാർമ്ഫുൾ ആവാത്തൊരു ഇതൊക്കെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ് ഗാർണിയറിൻ്റെ പ്രൊഡക്റ്റ്